ആ കേൾക്കാമല്ലോ പറഞ്ഞോ ആ അതെ അതെ ആരായിരുന്നു വിളിക്കുന്നത് ആ ആ ആ ആ ആ ആ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നതല്ല ഞങ്ങളു ടെ മായം ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന നല്ല ചൂടോടെ തരുന്ന സാധനമായത് കൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും അതിൻറെ അകത്ത് മായം ചേർക്കാറില്ല പിന്നെ വർഷങ്ങളായിട്ട് നമുക്ക് ഉണ്ടാക്കി ചാക്കോ ചേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ റെസ്റ്റോറൻറിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ആളുടെ കൈപ്പുണ്യം കൊണ്ടൊക്കെ കൂടിയാണ് അങ്ങനെ ഇവിടുന്ന് കഴിക്കുന്ന എല്ലാവരും ആ പറയാം പറയാം ഇവിടെ കഴിക്കുന്ന സാധാരണ എല്ലാവരും അങ്ങനെ പറയാറുണ്ട് നിങ്ങൾ മൈദയുടെ പൊറോട്ട ആണോ അതോ ഗോതമ്പിൻ്റെ പൊറോട്ട ആണോ കഴിച്ചത് നല്ല സോഫ്റ്റ് ആയിരുന്നല്ലേ ആ ആ വൈകുന്നേരം നമുക്ക് ഫ്രൈഡ് റൈസ് ചിക്കൻ ഉണ്ട് ചോറും കറികളും ഉണ്ട് ഈ വൈകുന്നേര സമയങ്ങളിൽ കഞ്ഞി ചമ്മന്തി ഇതുണ്ട് പിന്നെ വൈകുന്നേര സമയങ്ങളത് കൂടാതെ തന്നെ നമുക്ക് മസാല ദോശ നെയ് റോസ്റ്റ് ആ കാറ്റഗറി പെട്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കൂടുതൽ നമ്മൾ നാടൻ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് ആ ആ ആ ആ ആ ഓ വിളിച്ചാൽ ആ ആ ആ ആ വിളിച്ച് ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ ആ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അവരോട് പ അത് കൂടാതെ പറയുവേം കൂടെ ചെയ്യണം വേറെ ഒന്നും ചേർക്കുന്നത് കൊണ്ടല്ല മായം ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന തനി നാടൻ സാധനമാണ് അത് കൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് എന്ന് പറയണം അല്ലാതെ നമ്മൾ വേറെ ഒരു സാധനമോ ടേസ്റ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ചേർക്കുന്നൊന്നും ഇല്ല ഓക്കെ ഓക്കെ അപ്പോൾ വളരെ സന്തോഷം വിളിച്ചതിന് ഒത്തിരി നന്ദി ആ ബിസിനസ് ആ നല്ല രീതിയിൽ പോവുന്നു കുഴപ്പം ഒന്നുമില്ല ആ കൂടുതൽ പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നത് കൊണ്ട്

കൂടുതൽ പേർ ആ ഹാ ഹാ ആ ആ ആ ഓക്കെ വിളിച്ചതിൽ അപ്പോൾ സന്തോഷം ഇനി വരുമ്പോൾ ഇവിടെ വന്ന് കയറുക ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കുക കൂടെ ആളുകളെ കൂട്ടിക്കൊണ്ട് വരിക ഓക്കെ ആ താങ്ക് യു താങ്ക് യു ആ ആ ഓക്കെ താങ്ക് യു താങ്ക് യു